ഇന്ത്യയിലെ രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ടും രാഷ്ട്രീയ പാര്ട്ടിനെ കുറിച്ചിട്ടും എനിക്കുള്ളത് നല്ല അഭിപ്രായമാണ് കാരണം ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയില് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഏറ്റോം ഉയര്ന്ന നിലയില് കുതിച്ച് കൊണ്ടിരിക്കുകയാണ് അതില് കമ്മ്യൂണിസ്റ്റ് പാര്ട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഏറ്റവും ഉന്നതയില് നില്ക്കുന്ന അല്ലെങ്കില് കേരളത്തിന്റെ ഭര ഭരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലിപ്പോള് കമ്മ്യൂണിസ്റ്റ് പാര്ട്ടിയുടെ കയ്യിലാണുള്ളത് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പിണറായി വിജയന് ശൈലജ ടീച്ചര് എന്നിവരാണ് അപ്പോൾ അവരെ കാണാനും അവരോട് സംസാരിക്കാനും പറ്റുവാണെങ്കില് ഞാന് ചോദിക്കുന്ന ആദ്യത്തെ കാര്യം എങ്ങനെയാണ് ഇത്രയും വില് പവറോട് കൂടി അല്ലെങ്കില് ഇത്ര നന്നായിട്ടെങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിനെ കൈകാര്യം ചെയ്യാന് സാധിക്കുന്നത് എന്ന കാര്യവായിരിക്കും ചോദിക്കുന്നുണ്ടാകുക ഏതൊരു പ്രതിസന്ധി വരുന്ന സമയത്തും അതിനെതിരെ പോരാടാനുള്ള ശക്തമായിട്ടുള്ള കഴിവ് ആര്ക്ക് ഇവര്ക്ക് രണ്ടുപേര്ക്കും ഉണ്ട് പിണറായി വിജയനായിക്കോട്ടെ നമ്മുടെ ശൈലജ ടീച്ചറായിക്കോട്ടെ ആവരെല്ലാം എത്ര മനോഹരമായിട്ടാണ് ഓരോ കാര്യത്തിനെതിരെ പോരാടുന്നത് അപ്പോൾ അവരോടുള്ള ആ ഒരു ബഹുമാനം അല്ലെങ്കില് അവരുടെ ആ ഒരു ജീവിതരീതിയൊക്കെ എനിക്കേറ്റവും കൂടുതലിഷ്ടമാണ് അവരോട് ചോദിക്കാന് സാധിക്കുന്ന കാര്യം എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയത്തിനെ ഇത്ര നന്നായിട്ട് മുന്നോട്ടു കൊണ്ടു പോവുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളതിനു വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത് അല്ലെങ്കില് ജീവിതത്തില് എങ്ങനെയാണിത് മുന്നോട്ടു കൊണ്ടു പോവുന്നത് എന്നുള്ള ചോദ്യമായിരിക്കും